പച്ചക്കറി അത് ഓരോന്നിനും അനുസരിച്ച് ഓരോരോ റേറ്റ് ആണ് തക്കാളി അമ്പത് രൂപ വെണ്ടയ്ക്ക അറുപത് തേങ്ങയ്ക്ക് റേറ്റ് ഇപ്പം കുറവാണ് ഉം പിന്നെ വേറെ എന്താണ് വേണ്ടത് ആ ഇതെന്ത് കല്ല്യാണ ആവശ്യത്തിനാണോ അല്ല വീട്ടാവശ്യത്തിനാണോ ആ ആ അപ്പം നിങ്ങൾ സ്ഥിരം വരുന്നതല്ലേ അപ്പം വന്ന് നോക്ക് നല്ലത് ആ ആ ഇത് ആ ഓരോന്നിനും കൂടിയിട്ടുണ്ട് ഓരോ ഓരോന്നിന് കുറവുണ്ട് ഉം തക്കാളി അമ്പത് വരുന്നതല്ലേ ആ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് തക്കാളിക്ക് ആ ആ ആ കുറച്ച് കുറച്ച് ഇപ്പം ആ ജി എത്രയാവുമ്പം ആ സ്ഥിരം വരുന്നതല്ലേ അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം

നോക്കാം നോക്കാം അത് പ്രശ്നമില്ല അത് നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ഏ ആ അതെ അപ്പം നിങ്ങൾ എപ്പം വരുന്നത് വേറെ എന്ത്

ആ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെലിവർ ചെയ്യും ആ അതെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് ആ ആ

ആ ഫ്രൂട്ട്സ് ഉണ്ട് പച്ചക്കറിയാണ് മെയിൻ പച്ചക്കറിയാണ് മെയിൻ ആയിട്ട് ഇതുള്ളത് ആ അപ്പം എപ്പം നമ്മൾ വരുന്നത് ആ കാപ്സിക്കം ഉണ്ട് അതെല്ലാം ഉണ്ട് ഉള്ളി ചേന വെണ്ട അപ്പം എപ്പം നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വന്നോ നിങ്ങൾ അല്ലെങ്കിൽ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ഓർഡർ അടിക്കാം ഓക്കെ